വയനാട്ടില് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന ഗ്രൗണ്ടെന്ന് പറയുവാനാണെങ്കിൽ സ്കൂൾ ഗ്രൗണ്ട്കളാണ് കൂടുതലും നമ്മള് കണ്ട് വരുന്നത് അതായതിപ്പോൾ എല്ലാ സ്കൂളുകളിലും മിക്ക സ്കൂളുകളിലും ഗ്രൗണ്ട്കള് നമ്മള് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്പോർട്സിലായാലും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകാനായിട്ട് അത് ഭയങ്കര ഹെൽപ്പ് ഫുള്ളാണ് പിന്നെ വായനാട്ടിലേറ്റവും മെയിനായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് കൃഷ്ണഗിരി എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയം ആണ് അവിടെ ക്രിക്കറ്റ് പോലുള്ള ഗെയിമിംഗിനൊക്കെ എന്താ പറയുക ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിട്ടാണ് നമ്മള് കണ്ടിട്ടുള്ളത് കാരണം അവിടെ ടൂർണമെന്റും കാര്യങ്ങളുവൊക്കെ നടത്തുകയും പിന്നെ കുട്ടികൾ ക്രിക്കറ്റ് താത്പര്യമുള്ള കുട്ടികൾക്ക് അവിടെ കോച്ചിങ്ങും കാര്യങ്ങളുമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ക്രിക്കറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രൗണ്ടാണത് ആ പിന്നെ എന്താ പറയുക ഗെയിമിസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് വായനാട്ടിലെല്ലാ സ്ഥലത്തും ടർഫുകള് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഫുട്ബോള് കാര്യങ്ങളൊക്കെ കളിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇഷ്ട്ടം പോലെ ഇപ്പോൾ എന്താ പറയുക വായനാട്ടില് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഗ്രൗണ്ട് കാര്യങ്ങളൊക്ക ഇഷ്ട്ടം പോലെ തന്നെ വായനാട്ടിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം